വിശേഷം എന്നാ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഉം എന്നാ വിളിച്ചേ ആ കച്ചവടം ഒക്കെ നല്ലതായിട്ട് പോകുന്നുണ്ട് ആ എന്നാ വിളിച്ചേ ആ ആ ശരി ശരി ആ ആ എന്നായൊക്കെ

അത് മഴയൊക്കെ അല്ലായിരുന്നോ മഴയൊക്കെ ആയിരുന്നപ്പോഴേ ആ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറിയൊക്കെയല്ലേ അതൊക്കെ അപ്പം മഴയുടെ കാഠിന്യം കൊണ്ടായിരിക്കും ചിലതിനൊക്കെ കേടൊക്കെ ഉണ്ടായിരുന്നു അത് സാരമില്ല അത് അടുത്ത പ്രാവശ്യത്തെ സാധനത്തിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തു തന്നോളാം ഉം എന്നാക്കെയാ വേണ്ടിയേ ഇൻഡ്യാഗേറ്റുണ്ട് ബസുമതിയുണ്ട് ജീരകശാല അരിയുണ്ട് ഉം ഏതേലുമോ ആ രണ്ട് കിലോയോ ആ പിന്നെ എന്നാ വേണം

തക്കാളി മല്ലിയില പതിനയില ക്യാരറ്റ് ബീൻസ് ആ അതേയല്ലേ അത് നൂറ് ഗ്രാം വാങ്ങിച്ചാൽ മതി നൂറ് ഗ്രാം വാങ്ങിക്കാം എന്നിട്ട് വില കുറയുമ്പോൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്താൽ മതി മ് പിന്നെ നെയ്യേ വേണ്ടേ ആ ആ ആ ആ എസൻസ് വല്ലതും വേണോ ആ പപ്പടമോ തൈര് ഇവിടെയില്ല കേട്ടോ ആ ആ പിന്നെ പച്ചമുളക് പിന്നെ എന്നാ വേണം വെളുത്തുള്ളി ഒക്കെ വേണോ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഒക്കെ വേണോ ആ ആ കാൽ കിലോയോ അരക്കിലോ ആ ആ ആ പിന്നെ എന്നാ വേണം ആ ആ ആ ആ അതെയതെ അതെ ആ എല്ലാം കൂടെ ഞാൻ എടുത്തേച്ച് ബില്ല് അയച്ചു തരാവേ ഗൂഗിൾ പേ ചെയ്താലും മതി ഉം ഓക്കെ ആ ശരി ഓക്കെ ഓക്കെ